ഇപ്പം വിനോദസഞ്ചാരികൾക്ക് സന്ദർശിക്കാൻ പറ്റിയ ത എന്താണ് പറയുക ഇപ്പം ആചാര സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മുടെ ഇവിടെ ഉള്ള പോൽ തിരുനെല്ലി അമ്പലം ആണ് തിരുനെല്ലി അമ്പലത്തിൽ നമുക്ക് അവിടെ അവിടെ ഉള്ള അചാരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ഈ അമ്പലങ്ങളിലൊക്കെ പോകാൻ പറ്റിയ സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജാതിയോ ഇപ്പം ഈ വിനോദസഞ്ചാരികൾ കൂടുതലായിട്ടും പല ജാതിയിൽ പെട്ടവരായിരിക്കും അപ്പം അവർക്കൊക്കെ കാണാൻ പറ്റിയ ഒരു അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണൂരുള്ള ശ്രീമുത്തപ്പൻ്റെ അമ്പലമാണ് അവിടെ നിന്ന് നമുക്ക് പറഞ്ഞ് കഴിഞ്ഞാൽ ആർക്കുവേണമെങ്കിലും കയറിച്ചെല്ലാനുള്ളാരു അനുവാദം അവർക്കുണ്ട് ആർക്കാണെങ്കിലും നമുക്ക് കയറിപ്പോകാം ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും അപ്പം ഹിന്ദു വിഭാഗത്തിൽ പെട്ട ആൾക്കാരാണെങ്കിലും അവരുടെ പല ജാതിക്കാരുണ്ടാകും ഏത് ജാതിയിലും ഏത് മതത്തിൽ പെട്ട ആൾക്കാർക്കും അവിടെ പൊയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറി സന്ദർശിക്കാനും എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അവിടുത്തെ ഒരു പ്രസാദം ഉണ്ട് അതായത് പയറും തേങ്ങാകൊത്തും ചായയും ഈ കാര്യങ്ങൾ നമുക്ക് ഏത് മതത്തിൽ ഉള്ള ആളാണെങ്കിലും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അത് ആദ്യം നമുക്ക് കഴിക്കാൻ വേണ്ടി തരും അത് ഇപ്പം ഞാനൊരു മുസ്ലിം ആണെന്ന് പറഞ്ഞാലും അവർക്ക് അത് ഒരു കുഴപ്പം ഇല്ല നീ ആദ്യം പോയി ചായ കുടിക്ക് എന്നിട്ട് ബാക്കി സംസാരിക്കാം എന്നൊക്കെ ആണ് അവർ പറയുക അപ്പം അതൊരു നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്